ഒരു സ്കൂൾ പെർഫോമൻസ് ഉണ്ടായിരുന്നു ആനുവൽ ഡേ പോലുള്ളതൊക്കെ അവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ നമ്മള് ജഡ്ജസക്കെ ഉണ്ടാകും നമ്മളെ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടീട്ടും അവരിൻ്റെ നമ്മണ്ടെ സ്കോറികളക്കെ എഴുതി വയ്ക്കാൻ വേണ്ടി ജഡ്ജസ്സുണ്ടാകും അപ്പോൾ അവർക്കിടയിൽ ആയിരുന്നു ഞാന് ഒരു ദിവസം ഞാൻ പോയത് നല്ല പേടിയും വിറയ്ക്കലൊക്കെ ഉണ്ടായിരുന്നു അതിന് മുന്നേ കുറെ നേരം ഒറ്റയ്ക്കിരുന്ന് കുറച്ച് നേരം പാട്ടൊക്കെ നന്നായിട്ട് കേട്ട് കുറച്ച് നേരം നന്നായി പാടി നോക്കി പിന്നെ കുറച്ച് എക്സ്പീരിയൻസുള്ള ആൾക്കാരിൻ്റെ മുന്നിലിരുന്ന് കുറച്ച് അവരിങ്ങനെ നമുക്ക് കുഴപ്പമില്ല പേടിക്കണ്ട എന്നൊക്കെ കുറച്ച് നേരം പറഞ്ഞ് അവരിൻ്റെ അതൊക്കെ കണ്ട് പോയി ആരിൻ്റെ മുഖത്തും ആദ്യമൊന്നും ആരിൻ്റെ മുഖത്തും അങ്ങനെയൊന്നും നോക്കിയില്ല പിന്നെ നല്ല പേടിയായിരുന്നു ഫസ്റ്റ് ഇങ്ങനെ അവര് പേരൊക്കെ ചോദിച്ചു അപ്പത്തന്നെ അപ്പത്തന്നെ അവരുതന്നെ ചോദിച്ചു പേടി ഉണ്ടല്ലെ അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല നന്നായി പാടിയാൽ മതി പേടിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവര് തന്നെയൊര് ഇത് ഒര് ഇത് മോട്ടിവേഷൻ തന്നു പിന്നെ മനസ്സില് ആ പാട്ട് വിചാരിച്ച് അങ്ങനെ പാടി കുഴപ്പമൊന്നും ഇല്ലാന്ന് എല്ലാവരും നല്ല സജക്ഷൻ തന്നെയായിരുന്നു പറഞ്ഞത്